ഇന്ത്യയിലെ ഗതാഗത സംവിധാനം വളരെ മികവുറ്റതാണ് കൂടുതലും ആൾക്കാർ ആശ്രയിക്കുന്നത് ഗ്രാമങ്ങളിൽ ടൂ വീലറുകളെ ആണ് അതോടൊപ്പം തന്നെ പബ്ലിക്ക് ട്രാൻസ്പോർട്ടുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കാര്യമായിട്ട് പബ്ലിക്ക് ട്രാൻസ്പോർട്ടുണ്ട് അത് ഗതാഗത സംവിധാനത്തിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനം അത് ആ അവരാണ് ആൾക്കാരെ കൊണ്ടുപോകുകയും ചെയ്യുന്നത് സാധാരണ നമുക്ക് ഉപയോഗിക്കുന്നത് ഫോർ വീലറായിട്ടുള്ള സ്വകാര്യ കാറുകളുണ്ട് അതോടൊപ്പം തന്നെ ടൂ വീലറുകളുണ്ട് അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ബസ്സുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ചാർട്ട് ചെയ്തു പോകുന്ന മറ്റു വാഹനങ്ങൾ യൂബർ ടാക്സികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗങ്ങൾ ഈ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെയാണ് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ചരക്ക് നീക്കത്തിന് മറ്റു വാഹനങ്ങളുണ്ട്

അപ്പോൾ അത് സഞ്ചരിക്കാനും അതു നമ്മൾ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കാനും അത് ഉപയോഗിക്കുന്നുണ്ട്